എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്ന നേട്ടം എന്നുവച്ചാൽ എനിക്ക് ഡിഗ്രി ഡിഗ്രിയിൽ ഒരു സീറ്റ് കിട്ടിയത് തന്നെയാണ് എൻ്റെ അ എൻ്റെ വീട് ഒരു ഒരു ഒരു തരക്കേടില്ലാത്ത കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് എങ്കിൽ പോലും ഒരുപാട് പൈസ കൊടുത്ത് സീറ്റ് വാങ്ങേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല എനിക്കും എന്റെ ഫാമിലിക്കും ഇല്ലായിരുന്നു അപ്പൊൾ ഞാൻ പ്ലസ് ടു നന്നായിട്ട് പഠിച്ച് എനിക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു ആ മാർക്കിൽ എനിക്ക് നല്ലൊരു എന്റെ വീട്ടിനടുത്ത് തന്നെയുള്ള രണ്ട് കോളേജുകൾ ഒരു ഗവർമെന്റ് കോളേജും ഉണ്ടായിരുന്നു മേരിമാത കോളേജും മെറിറ്റ് സീറ്റ് കിട്ടുന്ന ഏറ്റവും ആഡ് അടിപൊളി എന്റെ പ്രദേശത്തുള്ള ഏറ്റവും അടിപൊളി കോളേജുകളിലെ രണ്ട് കോളേജുകളാണ് ഇത് അതുകൊണ്ടുതന്നെ എനിക്ക് പ്ലസ് ടു കഴിഞ്ഞ് സീറ്റ് കിട്ടാന് താമസിച്ചിരുന്നു രണ്ട് മൂന്ന് അലോട്ട്മെൻറ്റിൽ ഒന്നും കിട്ടിയില്ല രണ്ട് അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ല മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ആണ് എനിക്ക് മേരിമാത കോളേജിൽ കിട്ടുന്നത് അത് എനിക്ക് ഭയങ്കര അഭിമാനം വീട്ടുകാരുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും അത് എനിക്കൊരു അഭിമാനം അഭിമാനം ഉള്ള കാര്യമാണ് ഇപ്പോഴും എനിക്ക് അത് അവിടെ പഠിച്ച ഇറങ്ങി എന്ന് പറയുമ്പോൾ അതെനിക്ക് ഇപ്പോഴും വലിയൊരു അഭിമാനമാണ് മേരിമാതാ ഇംഗ്ലീഷിൽ ആണ് എനിക്ക് കിട്ടിയത് അതുപോലെ ഗവൺമെൻറ്റിലെ ഗവൺമെൻറ്റ് കോളേജിൽ കിട്ടണമെങ്കിൽ എനിക്ക് ബികോം ആയിരുന്നു ഞാൻ കൊടുത്തത് അപ്പൊൾ കിട്ടണമെങ്കിൽ സീറ്റ് വളരെ ടൈറ്റ് ആയ കോമ്പറ്റീഷൻ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള സീറ്റാണ് ബികോം ഗവൺമെൻറ്റ് കോളേജിലെ ബികോമിന് കിട്ടണം എന്നുള്ളത് അപ്പൊൾ എനിക്ക് അവിടുന്ന് മേരിമാതാ ഞാൻ ഇംഗ്ലീഷിൽ ആയിരുന്നു ഇംഗ്ലീഷ് ക്ലാസില് പഠിച്ച കൊണ്ടിരിക്കുന്ന ആ സമയത്ത് എന്നെ എനിക്ക് ഗവൺമെൻറ്റ് കോളേജിൽ ബികോമിന് സീറ്റ് കിട്ടിയിട്ട് അവിടുത്തെ പ്രിൻസിപ്പൾ വിളിച്ചു അതെനിക്ക് വളരെ വളരെ വലിയ അഭിമാനം തോന്നിയ ഒരു നിമിഷം തന്നെയാണ് അവിടെയാണ് ഞാൻ പ് മൂന്നുവർഷം ബികോം പഠിച്ചിറങ്ങിയത് അതിപ്പോഴും എനിക്ക് ആരുടെ മുന്നിലും ഇപ്പോൾ എൻ്റെ പഠനകാലത്ത് ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ് ആരോട് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഈ ഒരു കാര്യമാണ് ഫസ്റ്റ് എടുത്തു പറയുന്നത് ഇതെനിക്ക് ഒരു അഭിമാനം ഉള്ള കാര്യം തന്നെയാണ്